ജലക്ഷാമം ഒക്കേ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടേ ഇപ്പം ഇന്ന് വെച്ചിട്ടുണ്ടേ എല്ലാ മരങ്ങളും കാടുകളും ഒക്കെ വെട്ടി നശിപ്പിക്കാ നമുക്ക് ആ അതും വഴിയൊക്കെയാണ് നമുക്ക് കൂടുതലും ജലങ്ങൾ ജലം അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ കിട്ടുന്നത് അപ്പം ജലക്ഷാമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാകും അത് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഒരു തുള്ളി വെള്ളം അതായത് നമുക്ക് ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് മരണ വേദനയിൽ കിടക്കുമ്പോഴും നമുക്ക് ഒരു എല്ലാവരും തുള്ളി വെള്ളം നമുക്ക് തരും ആ വെള്ളം കിട്ടണമെങ്കിൽ നമുക്ക് വെള്ളം ജലക്ഷാമം ഇല്ലാതിരിക്കണം അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം അത്രക്ക് അത്യാവശ്യമുള്ള ഒരു ഘടകമാണ് വെള്ളം അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നേ വെള്ളം ഇല്ലെങ്കിലെന്ന് വെച്ചിട്ടുണ്ടേ നമുക്ക് ഭയങ്കര നമ്മുടെ ജീവൻ തന്നെ നിലനിൽക്കണമെങ്കിൽ നമുക്ക് ഒരു തുള്ളി വെള്ളം തന്നെ വേണം നമുക്ക് ഇപ്പം ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ചാൽ നമുക്ക് വയറ് ഫുള്ളാക്കാം പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇല്ലാതിരിക്കാൻ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മരം വെട്ടാതിരിക്കുക പിന്നെ അതായത് മലയൊക്കെ ഇടിച്ച് നിരത്താണ്ടിരിക്കുക കൂടുതലും മരം വെട്ടാണ്ടിരിക്കുക മരം വെട്ടാണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് വെള്ളം ഒരുപാട് ഉണ്ടാകും അല്ലെങ്കിൽ നമുക്ക് വെള്ളം ഒന്നും ഉണ്ടാകില്ല വെള്ളം കുടിക്കാണ്ട് എല്ലാവരും മരിക്കേണ്ടി വരും